നമ്മുടെ കോഴിക്കോടില് വെച്ചിട്ടുണ്ടെങ്കില് എല്ലാവരും എല്ലാ ജോലികളും ചെയ്യുന്ന ആൾക്കാരാണ് ജോലി ചെയ്യാൻ മടിയില്ലാതെ ജോലി ചെയ്താലാണ് നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ചിന്താഗതിയുള്ള ആളുകള് അപ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടുതല് മാൾ ഷോപ്പുകളുടെയൊക്കെ എണ്ണം കൂടുതാലുള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ജോലി സാധ്യതകളുണ്ട് സെയിൽസ് മാനായിട്ട് ഓരോ രീതിയില് ടീച്ചറാവാം ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് എൻജിനീയേഴ്സ് ഉണ്ട് ഡോക്റ്റേഴ്സ് ഉണ്ട് പിന്നെ സ്റ്റിപ്പേഴ്സ് ഉണ്ട് അങ്ങനെ ഓരോ എല്ലാ രീതിയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് കൃഷിക്കാരുണ്ട് മീൻ മീൻകാരുണ്ട് മീൻ പിടിക്കാൻ പോകുന്നവരുണ്ട് അപ്പോൾ എല്ലാ രീതിയിൽപ്പെട്ട ആൾക്കാരും നിൽക്കുന്ന ഇതാണ് അതായത് എല്ലാ രീതിയിലുള്ള തൊഴിൽ അവസരങ്ങളും അവർക്കുണ്ട് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് തൊഴില് അത് പ്രാവർത്തികമാക്കാനുണ്ട് ഓരോ പിന്നെ തൊഴിൽ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരങ്ങളുണ്ട് പിന്നെ പ്രൊഡക്ഷൻ ഉണ്ട് സൂപ്പർവൈസർ ഉണ്ട് അറ്റന്റേഴ്സ് ഉണ്ട് ഫിലിമിപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മേഖലയിലും പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും ജോലി ഉണ്ട് ജോലി ഇല്ലാത്ത ഒരു മനുഷ്യരില്ല എന്തെങ്കിലും ഒരു രീതിയിൽ ജോലി ചെയ്യുന്നവരുണ്ട് വീട്ട് ജോലിക്ക് പോകുന്നവരുണ്ട് ഒത്തിരിയേറെ ഫ്ലാറ്റുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അവിടെ വോർക്ക് ചെയ്യാൻ പോകുന്ന സാധാരണ വീട്ടമ്മമാരുണ്ട് അവിടെ ഓരോ ഇപ്പോൾ ജോലിക്കാരായ വീട്ടില് വീട്ടു പണിക്ക് പോകുന്ന എത്രയോ പേരുണ്ട് ഇപ്പോൾ എല്ലാവരും ജോലി അതിൻ്റെ മഹിമ ഉൾകൊണ്ട് ജോലി ചെയ്യുന്ന ഒത്തിരി അനേകം ആൾക്കാര് നിൽക്കുന്ന ഒരു ജില്ല എന്ന് പറയണമെങ്കിൽ അത് കോഴിക്കോടാണ്